ഹലോ ഞാൻ ഇക്കേ എനിക്കൊരു സംശയം ചോദിക്കാനായിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്നൊരു ടൂറിസ്റ്റ് ആണേ ആ നിങ്ങൾ അവിടെ തന്നെ താമസിക്കുന്ന ഒരാളാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടുത്തെ ജീവിതരീതികളെ പറ്റി എന്ത് ഇപ്പം ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ട് കേരളം വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ടെന്നല്ല പറഞ്ഞ് അറിയുന്നുണ്ട് ഈ കേരള ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഭയങ്കര സംശയം ഞാൻ എൻറെ കൂടെ ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു ആർക്കും അത്ര ധാരണയില്ല അതിനെ പറ്റി അതെ അതെ ഇല്ല നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം അവധിക്കായിട്ട് വന്നപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ വന്നതാണ് കേരളത്തിൽ ആല ആലപ്പുഴയായിരുന്നു പക്ഷേ അ അവിടെ താമസിച്ചിട്ടേ ഇല്ല ആ ഞാൻ കുഞ്ഞിലേ തൊട്ടേ പുറത്തായിരുന്നു ആ ഇവിടെ ഒരുപാട് തെങ്ങുകളുണ്ടല്ലോ ഒരുപാട് തെങ്ങുകളുണ്ട് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കൂടുതലും തെങ്ങിൻ്റെ പടവും കഥകളിയൊക്കെ കാണുന്നത് നിങ്ങളുടെ അവിടെ വന്നാൽ കഥകളി കാണാൻ പറ്റുമോ ആ എനിക്ക് കഥകളി കഥകളി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ അവിടെ വന്നാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകുമോ കഥകളി കാണാൻ പിന്നെ എനിക്ക് അവിടുത്തെ ഒരുപാട് ഭക്ഷണങ്ങളും ട്രൈ ചെയ്യണം എന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ പറയുന്നത് അപ്പം ഗോഡ്സ് ഓൺ കൺട്രിയുടെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും എനിക്ക് ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രിയിൽ കൂടുതലും ഭക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പ്രകൃതിഭംഗി ഒരുപാടുണ്ട് പിന്നെ കലാരൂപങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും കൂടുതൽ അറിയാനായിട്ട് ഉറപ്പായിട്ടും ഉടനെ തന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ അങ്ങോട്ട് വരുന്നതായിരിക്കും കേട്ടോ യ് ശരി താങ്ക് യു